പെയിൻടിങ്ങ് ഞാൻ തുടങ്ങണത് തന്നെ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് മദ്രസകൾ മദ്രസേല് വെച്ചിട്ടുള്ളൊരു മത്സരമായിരുന്ന് അങ്ങനെ ഒന്നിൻ്റെ പേര് കൊടുത്തപ്പോളാണ് ഞാനറിയണത് ഞാൻ പെയ്ന്റിങ്ങിലുണ്ട് എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ രണ്ട് മൂന്ന് നാല് പെയ്ടിങ്ങൊക്കെ ചെയ്തോക്കി അപ്പോൾ എൻക്ക് ഇഷ്ടായപ്പോൾ പിന്നെ ഞാൻ മത്സരത്തിൽ പങ്കെടുത്തു അങ്ങനെ അത് മദ്രസേൽ മദ്രസയിലെ കുട്ടികൾ മാത്രം വെച്ചിട്ടുള്ളൊരു മത്സരായിരുന്നു പിന്നെ മറ്റ് മദ്രസകളുവായിട്ട് മത്സരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഏനെ സംസ്ഥാനം ദേശിയ തലത്തിലൊന്നും മത്സരിയ്ക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരം മത്സരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരത്തിലും പങ്കെടുത്തിട്ടുണ്ട് അത് ദേശീയ തലത്തിലൊന്നുവെത്തീട്ടില്ല പിന്നെ ഇതിലെക്കെ പങ്കെടുക്കുമ്പം എൻക്ക് വാക്കിയുള്ളവരെ വരച്ചതക്കെ കാണുമ്പം എൻ്റതൊന്നുങ്കൂടി നല്ലതാക്കിയാനേന്നൊക്കെ തോന്നീട്ടുണ്ട് പിന്നെ ഇങ്ങനെ പങ്കെടുക്കാൻ മത്സരങ്ങൾ പങ്കെടുക്കാൻ പറ്റണത് തന്നെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ കാണണത് പിന്നെ എല്ലാവരും വരച്ചൊക്കെ കാണുമ്പം നമുക്ക് നല്ല രസമായിട്ട് തോന്നാറുണ്ട് മത്സരങ്ങളിൾലക്കെ പങ്കെടുക്കുമ്പം നല്ല രസമാണ് എല്ലാവരും വരക്കണതും കാണാം പിന്നെ നിങ്ങൾക്ക് അടുത്ത മത്സരങ്ങളിൽ ഞങ്ങളെന്തക്കെ ഉൾപ്പെടുത്തണം എന്തക്കെ ഉൾപ്പെടുത്തണ്ട ഇനി അടുത്ത മത്സരങ്ങളിൽ നമ്മളെ ഒന്നാം സ്ഥാനത്തക്കെ എന്ത എത്താൻ എന്തക്കെയാണ് ഇനീം ചെയ്യേണ്ടതെന്നൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തുമ്പം നമുക്ക് അറിയാൻ കഴിയും അതാണ് എനിക്കുള്ള അനുഭവം